നമ്മള് സാധാരണ ഫോട്ടോ എടുക്കുന്ന പോലെയും റീൽസ് എടുക്കണ പോലെയും അല്ല ഈ ക്യാമറ ഉപയോഗിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടണ ആ പിക്സ് എന്ന് പറയുന്ന അതിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഇല അല്ലെങ്കിൽ ഒരു ഒബ്ജെക്ടിനെ നമ്മൾ സൂം ചെയ്തെടുക്കുമ്പോൾ ക്യാമറയും കൊണ്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി നമുക്ക് അതിൽ കാണാൻ കഴിയാറുണ്ട് അത് നമ്മൾ അത് ഒന്ന് ആ കണ്ടൻറ്റ് ആ ഒബ്ജെക്ട് ഒരിക്കലും തെന്നിമാറാറില്ല കറക്റ്റ് സ്റ്റേബിൾ ആയിരിക്കും നമുക്കും നമ്മുടെ കയ്യൊന്നു ഷേക്ക് ആയാലും നമ്മുടെ കൈ ഇളകിയാൽ കറക്ട് ഫോട്ടോ കറക്റ്റ് സൂം ആയിട്ട് എന്താണോ നമ്മൾ ആ ഒബ്ജക്ട് ടച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒബ്ജക്റ്റ് നമ്മക്ക് കറക്ടായിട്ട് കിട്ടും അതിൽ ഒരു മാറ്റവും വരാറില്ല അത് അതേപോലെതന്നെ നല്ല ക്ലാരിറ്റിയുണ്ടാകും നമ്മൾ എന്തിനെയാണോ എടുക്കണത് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും കാണാൻ പറ്റും ഇതാണ് ക്യാമറിയിൽ എടുക്കുമ്പോളുള്ള പ്രത്യേകത എന്നുപറയണത് അത് നമുക്ക് ഫീൽ ചെയ്തറിയാൻ പറ്റുന്ന ഒന്നാണ് അതേപോലെതന്നെ നമ്മടെ ക്ലൈമറ്റ് ക്ലൈമറ്റ് എങ്ങനെയാണോ അതെ ഇതിൽത്തന്നെ കിട്ടും നമ്മൾ അതേപോലെ സാറ്റുറേഷൻ ഈ കാര്യങ്ങൾ അതേപോലെ ഈ ഫോട്ടോൻ്റെ ഡെപ്ത് സെൻസ് ഇതെല്ലം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഈ ക്യാമറ ഉപയോഗിച്ചു ഫോട്ടോ എടുക്കുമ്പോൾ അതുപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ എടുക്കണ ഫോട്ടോസ് ആണെങ്കിലും ഏത് ഈ ചിത്രങ്ങളെന്തെങ്കിലും അതേപോലെ ഈ റീലുകള് ചെറിയ ചെറിയ മുപ്പത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പോലുള്ള റീൽസ് ഇതൊക്കെ നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റായിരിക്കും അതിലൊന്നും ഒരു ക്ലാറിറ്റിയുടെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഒക്കെ കറക്ട് ഇതായിരിക്കും നമുക്ക് ഇല്ലേ മറ്റേ ക്ലിയറാവാതിരിക്കുകയോ അതേപോലെ എന്താണ് മനസ്സിലാവാണ്ട് ഇരിക്കുകയോ ഇതൊന്നും ഉണ്ടാവില്ല കറക്റ്റായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല അത് നല്ലൊരു നമുക്ക് റീലും ഫോട്ടോസൊക്കെ നമുക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും അത് മറ്റേ സാധാരണ നമ്മൾ ചിത്രം പകർത്തുന്നതിൽ തികച്ചും വ്യത്യസ്തമായിരിക്കും അത്